ആധാർ എന്ന് പറയുന്ന ബയോമെട്രിക് ഡേറ്റയുടെ സുരക്ഷയെക്കുറിച്ചാണ് അറിയേണ്ടത് ഇതിൻ്റെ ആധാർ ഡീറ്റെയിൽസ് നമുക്ക് എവിടെയൊക്കെയാണ് ആവശ്യം വരിക എവിടെയൊക്കെ കൊടുക്കാൻ പറ്റും ഇത് ബാ അതിൻ്റെ സുരക്ഷയെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട് കാരണം ഇപ്പം എന്തിലും ആധാർ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ട്സ് വരെ ഓപ്പൺ ചെയ്യാം പറ്റുന്ന ഇതാണ് സിറ്റുവേഷനാണ് അപ്പം പലരും പല ഇതിലും നമുക്ക് കോളുകൾ വരും ചിലപ്പം ആധാറിൻ്റെ നമ്പറ് പറയാനെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലായിടത്തും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം അത് അതിന് എങ്ങനെ അത് സുരഷിതമായിട്ട് നമ്മൾക്ക് വെയ്ക്കാം എന്നാണ് അറിയേണ്ടത്